നാല് അഞ്ച് രണ്ടായിരത്തി ആറ് മൂന്ന് ആറ് രണ്ടായിരത്തി പതിനേഴ് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് മുന്ന് രണ്ടായിരത്തി ഒന്ന് അഞ്ച് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട്